എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മത്സ്യം മത്തിയാണ് പണ്ട് തൊട്ടെ മത്തി വറ്റിച്ചതും മത്തി വറുത്തതും എൻ്റെ ഒരു വീക്ക്നസാണെന്നു പറയാം എൻ്റെ ഒരു ബലഹീനതയാണെന്ന് എനിക്ക് പറയാം പിന്നെ മറ്റുള്ള മീൻ കഴിക്കില്ലെന്നല്ല അതായത് വലിയ മീനിലാണെങ്കിൽ നെമ്മീൻ അല്ലെങ്കിൽ വറ്റ അത് നല്ല വണ്ണമൊക്കെ നല്ല ബ കനം കുറച്ച് മുളകൊക്കെ തേച്ച് വറുത്ത് അത് കഴിക്കുന്നത് വലിയ ഇഷ്ടമാണ് അങ്ങനെയാണ് സാധാരണ എനിക്കുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ മൂന്ന് മീൻ ഒന്ന് മത്തിയാണ് നോർമലി എനിക്കിഷ്ടം പിന്നെ എപ്പോഴും എപ്പോഴും മറ്റേ വറ്റയും മീനൊക്കെ ലൊക്കേഷനിലൊക്കെ വാങ്ങിക്കത്തുള്ളൂ പക്ഷെ അത് അതും എനിക്ക് വലിയ ഇഷ്ടമാണ് പിന്നെന്താണെന്നു പറഞ്ഞാൽ ഒരു ഒരു വിധം എനിക്കിഷ്ടം ഞണ്ട് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഈ തെരണ്ടി അങ്ങനത്തെ മീനുകളൊന്നും ഇഷ്ടമല്ല ഇങ്ങനെ ആവോലി ഇഷ്ടമാണേ പിന്നെ കരിമീൻ ഇഷ്ടമാണേ ഇത് ആദ്യം പക്ഷേ ഏതാണെങ്കിലും ഏതു മീനാണെങ്കിലും വറുത്ത് തരികയാണെങ്കിൽ എനിക്ക് വളരെ താല്പര്യമാണ് ഇഷ്ടമാണ് ഇതു കൊണ്ടാണ് മത്തിയാണ് എൻ്റെ പ്രിയപ്പെട്ട അയിലയും കുഴപ്പമില്ല പക്ഷെ ഇതെല്ലാം ഈ പച്ച മീനാണെങ്കിൽ അതായത് കിട്ടുന്നത് മാർക്കറ്റിൽ നിന്ന് പച്ച മീൻ കിട്ടുകയാണെങ്കിൽ വലിയ ഇഷ്ടമാണ് അത് കുറച്ച് പഴക്കം ചെന്നു കഴിഞ്ഞാൽ പിന്നെ കാശിനു കൊള്ളത്തില്ല അത് പിന്നെ ഏത് മീനായാലും അതിൻ്റത് രുചിയില്ല അതു കൊണ്ട് അത് കഴിക്കാൻ താല്പര്യമില്ല പിന്നെ ഒരു എന്താ പറയുന്നത് വീട് വീട്ടിലാണെങ്കിൽ ഒരു വിധമൊക്കെ എല്ലാ ദിവസവും മീൻ കാണും ഏതെങ്കിലും ഒരു മീൻ കാണും വാങ്ങിക്കും കറി വെക്കും അത് പിന്നെ നല്ല ഉണക്ക് പുളിയൊക്കെ ഇട്ട് കറി മുളകൊക്കെ അരച്ച് കറി വെക്കുന്ന മറ്റ് ആറ്റ് മീനാണെങ്കിലും എനിക്കിഷ്ടം ആറ്റ് മീൻ വറ്റിച്ചത് എനിക്കിഷ്ടമാണ്

പിന്നെ പ പണ്ടൊക്കെ പാ പാടത്തു നിന്നൊക്കെ കൊണ്ട് ആൾക്കാർ പള്ളത്തി പരൽ ഇതൊക്കെ കൊണ്ടു വരുമായിരുന്നു അതൊക്കെ വറുത്ത് കഴിക്കുന്നത് ഓർക്കാൻ പറ്റുന്നില്ല എന്നാൽ നല്ലതാണ് നല്ല ഇതാണ് ഓക്കെ ആ പിന്നെ വേറെ എന്താ പറയുക ഇതൊക്കെ തന്നെയാണ് താല്പര്യം